ഗ്രാമീണ സ്ത്രീകളെ പഠിപ്പിക്കാന് ജോലി ചെയ്യാനും സഹായിക്കുന്ന സംഘടനാന്ന് പറഞ്ഞാല് ഇപ്പോന്നു പറഞ്ഞാൽ സ്ത്രീകള് എല്ലാവരും പുറത്തു പോയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഉള്ളത് എന്നാൽ ആദ്യകാലത്തെന്നൊക്കെ പറഞ്ഞാല് പുറത്തിറങ്ങാനോ പിന്നെ ഒന്നും പാടില്ലായിരുന്നു സ്ത്രീകളെന്നു പറഞ്ഞാൽ വീട്ടിനുള്ളിൽ ഒതുങ്ങി നിക്കണം വീട്ടിനുള്ളിലെ പണികള് കുട്ടികളെയും വീട്ടിലുള്ളവരെയൊക്കെ നോക്കി വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി നിക്കണം എന്നൊക്കെയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത് എന്നാൽ ഈ കാലത്തെന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നുമല്ല സ്ത്രീകളാണ് എല്ലാ മേഖലയിലും ഇപ്പോൾ സ്ത്രീകളുണ്ട് തെങ്ങ് കേറാൻ പോലും ഇപ്പോൾ സ്ത്രീകള് തന്നെയാണ് ഉള്ളത് പിന്നേന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള പിന്നേ സംഘടനാന്ന് പറഞ്ഞാല് ഇപ്പോൾ എന്താ അവര് തൊഴിലുറപ്പിനൊക്കെ പോകുന്നത് സ്ത്രീകളൊക്കെ ഉണ്ട് ആദ്യകാലത്തങ്ങനെ തൊഴിലുറപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നുതന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ തൊഴിലൊറപ്പിനൊക്കെ പോകുന്നവരുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ ഈ കാലത്തെന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് ഒരുപാട് സംഘടനകളുണ്ട് വനിതാ വിങ് പിന്നെ വനിതാ സംഘടന അങ്ങനെയുള്ള സംഘടനകള് ഒരുപാടുണ്ട് അതിലൊക്കെ സ്ത്രീകള് എല്ലാ മേഖലയില് വീട്ടമ്മകളായിട്ടുള്ള സ്ത്രീകളാണ് കൂടുതലും അതിന് ഇറങ്ങി തിരിക്കുന്നത് തന്നെ